മതം ആളുകളെ എല്ലാവരെയും ഒത്തൊരുമിച്ചു കൊണ്ട് വരുന്ന ഒരിതാണ് ഇപ്പോഴുള്ളത് നമ്മളുടെ മതപരമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഉത്സവങ്ങൾ ഇപ്പോൾ എല്ലാ മതക്കാരും ഉത്സവങ്ങളിൽ പങ്കെടുക്കാറുണ്ട് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്തിയാനി എല്ലാ മതക്കാരും ഇപ്പം ഉത്സവങ്ങൾ ആഘോഷങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒത്ത് ഓടി ഒത്തൊരുമയോടു കൂടിയാണിപ്പം ഇപ്പം ഉത്സവങ്ങൾ നടക്കുന്നത് നമ്മളാ പ്രദേശത്തു തന്നെ പച്ച ശ്രീ ധർമ്മ ശാസ്താ ക്ഷേത്രം ദേശീയോത്സവായിട്ടു ഉള്ളൊരു ക്ഷേത്രമാണ് അതിൽ എല്ലാ മതക്കാരും അതിൽ പങ്കെടുക്കാറുണ്ട് ജാതിമതഭേദമെന്യെ എല്ലാവരും ആ ഉത്സവത്തിൽ പങ്കെടുക്കാറുമുണ്ട് സമൂഹം ഇപ്പോൾ എല്ലാവരും അതിൽ ഒത്തു ചേർന്ന് പരിപാടികൾ നടത്തുന്നതിലായാലും മറ്റെന്തുകാര്യങ്ങളിലായാലും അതിലെല്ലാത്തിലും ഒത്തു ചേർന്ന് തന്നെയാണ് എല്ലാവരും ഒത്തൊരുമയോടു കൂടി തന്നെയാണ് പോകുന്നത് പിന്നെ മുസ്ലിം പള്ളികളിൽ എന്തെങ്കിലും ഒരു ആഘോഷം വരെ എന്തെങ്കിലും ഒന്ന് വരുമ്പോഴത്തേക്കും നമ്മളും അതിൽ ചെന്ന് പങ്കെടുത്തവരെ ഇതിൽ നമ്മളും ചേരാറുണ്ട് പിന്നെ ക്രിസ്ത്യൻ്റെ ഇതിലായാലും അങ്ങനെ അവർക്കെന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോഴത്തേക്കും നമ്മൾ അവർ പറയുമ്പോഴത്തേക്കും നമ്മളതിൽ കൂടെ പങ്കു ചേരാനും അതിനു നമ്മളൊരു സമയം കണ്ടെത്താനും എല്ലാത്തിനും നമ്മൾ അതുപോലെ തന്നെയാണ് മതപരം അങ്ങനെ ഒരു ഇതേയില്ല എല്ലാ ജാതിക്കാർക്കും എല്ലാവരും ഇപ്പോൾ ഒത്തൊരുമയോടു കൂടിയാണ് എന്തെങ്കിലും ഒരിത് നടത്തുന്നത് ഒരുത്സവമായാലും വേറെന്തു പരിപാടികളായാലും എന്തായാലും അമ്പലത്തിലേതായാലും പള്ളിലേതായാലും ഏതിലുള്ളതായാലും എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ മതം ഒരിതേയല്ല എല്ലാവരും ഒത്തൊരുമയോടു കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും അത് മുന്നോട്ടു പോകുന്നത് എല്ലാവരും അതിൽ ഒത്ത് ചേർന്ന് തന്നെയാണ് ആ പരിപാടികളായാലും ആഘോഷിക്കുന്നത് ഉത്സവങ്ങളായാലും ആഘോഷിക്കുന്നത് എന്ത് വന്നാലും എല്ലാവരും അതെ രീതിയിൽ തന്നെയാണ് ഇപ്പം മതം ഇപ്പം ഒരു പ്രശനമേയല്ല അത് ആർക്കും അതൊരു പ്രശനമേയല്ല മതം